ഇന്ന് ഇന്ത്യയിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതും സംരക്ഷിക്കേണ്ട പെടേണ്ടതുമായ ചില ഇന്ത്യൻ കലാരൂപങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് മഞ്ജുഷ പെയിൻറ്റിങ് റോഗൻ പെയിൻറ്റിങ് പാഴ്സി എമ്പ്രോയ്ടറി ഗ്ലോപ്പ് വാർൾ പെയിൻറ്റിങ് സാൻറ്റൽ പെയിൻറ്റിങ് ഇങ്ങനെയുള്ള ചില കലാരൂപങ്ങളാണ് ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി മു മുന്നിലോട്ട് നമ്മൾ എടുക്കണ്ട പല തീരുമാനങ്ങളുമുണ്ട്